ആ ആ ആ പറയൂ ആ അതെ അതെ ആ പറയൂ ആ വന്നോളൂ വന്നോളൂ ഇതാ ഇവിടെത്തന്നെ ഓ ആ ഇതെന്നാൽ ഞാൻ പറയാം ഡീറ്റെയിൽസ് ഞാൻ പറയാം ഒന്നുമില്ല അത് അഞ്ചു ദിവസത്തെ ഞങ്ങൾ പാക്ക് ആണ് കൊടുക്കണത് അഞ്ചാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം തൃശ്ശൂർപ്പൂരം ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും വീടുകളും ഏല്ലാം കാണിച്ചിട്ട് മീൻസ് മ്യൂസിയവും മോളെല്ലാം കാണിച്ചിട്ട് നിങ്ങളെ നിങ്ങളെ അവസാനത്തെ ആ എയർപോർട്ട് വരെയുള്ള ആ അതു ആ ഇതുവരെയുള്ള നിങ്ങളെ യാത്ര അയക്കുന്ന വരെ ഉള്ളൊരു ഒരു പാക്ക് ആണ് ആ അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഈ ഈ ടൈം തൊട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം അഞ്ചാമത്തെ ദിവസം എത്ര വരും ഞങ്ങൾ ഈ അഞ്ചു ദിവസത്തെ പാക്കിന് ഞങ്ങൾ ഈടാക്കുന്നത് എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർ ഡേ ഒരു അഞ്ഞൂറ് വച്ചിട്ടാണ് അത് കാരണം ഞങ്ങൾ ആ ഞങ്ങൾ ഇത്ര കുറയ്ക്കാൻ കാരണം തൃശ്ശൂർപ്പൂരം ആയതുകൊണ്ടൊരു ഓഫർ കൊടുക്കാം എന്ന് വച്ചിട്ടാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കമ്പനിയിൽ കുറേ പേർക്ക് ഈ വട്ടം നല്ലൊരു ഇത് ഉണ്ട് ലാഭം ഉണ്ട് അപ്പോൾ ഇനിയുള്ള കസ്റ്റമേഴ്സിന് കുറച്ച് ഓഫറിൽ കൊടുക്കാമെന്ന് വച്ചിട്ടായിരുന്നു ഹാ അപ്പോൾ തൃശ്ശൂർപ്പൂരത്തിന് നിങ്ങളപ്പോൾ എത്ര ദിവസം സ്റ്റേ വേണം അല്ലേ

ഒരാഴ്ച്ചത്തേക്ക് സ്റ്റേ വേണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പാക്ക് പറയാം എട്ടു ദിവസത്തെ ഒരു പാക്ക് ഉണ്ട് അതായത് ഞങ്ങളെ തന്നെ സ്റ്റേയും സംഭവങ്ങളും ഫുഡും അക്കോമഡേഷനും സംഭവങ്ങൾ എല്ലാം ഞങ്ങൾ തരും ഞങ്ങളെ തന്നെ കമ്പനി വക ഒരു നാല്ലൊരു ഹോട്ടൽ ഉണ്ട് നിങ്ങൾക്ക് അത് പറ്റുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോട്ടല് നിങ്ങൾ ബുക്ക് ചെയ്ത് വേറെ ആണെങ്കിൽ വേറെ ചെയ്യാം പക്ഷെ അതിൽ പേയ്മെന്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നു മാത്രം ആ അത് റെഡി ആക്കാം നമ്മൾക്ക് അതിനുള്ള ഹോട്ടലുകൾ ഉണ്ട് ആ അത് ഉണ്ട് അത് തൃശ്ശൂർ തൃശ്ശൂർ നല്ല നല്ല സ്ഥലത്തു ഞങ്ങൾ കൊണ്ടുപോവും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രത്യേകത അതാണ് ഞങ്ങൾ ടൂറിസ്റ്റുകളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് വലുത് അത് കിട്ടും നമ്മൾക്ക് അത് അത് നമ്മൾ എന്താ പറയുക നല്ലൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോട്ടലുകളും ഹോട്ടൽ ഉണ്ട് ഞങ്ങളുടെ കമ്പനി വക തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ ആഗ്രഹ പ്രകാരം ഞങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ആ തേക്കിൻകാട് ആ നിങ്ങൾ നിങ്ങൾ വണ്ടിയുടെ പുറത്ത് വണ്ടിയുടെ പുറത്ത് നിൽക്കാണ്ട് വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്ക് എന്നിട്ടു സംസാരിക്കാം ആ നമുക്കെന്നാൽ പോവുകയല്ലെ നിങ്ങൾ അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ തേക്കിൻകാട് വരെ കൊണ്ടുപോവാം നമുക്ക് അവിടെ ചുറ്റി കറങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെയടുത്ത് ബാക്കി കാര്യങ്ങൾ പറയാം നിങ്ങൾ അപ്പോഴേക്ക് ഒന്ന് പറഞ്ഞാൽമതി അപ്പോൾ ശരി നിങ്ങൾ കയറിയിരുന്നില്ലേ അപ്പോൾ പോവുകയല്ലേ തേക്കിൻകാട് ആ ഓക്കേ ശരി

ആ